ഏതൊരു പാട്ടും അതിൻ്റെ വരികൾക്ക് വരികളും അതിൻ്റെ ലയ താളം ശ്രുതി അതിലൊക്കെയാണ് റെക്കോർഡിങ്ങിന് ആവശ്യം ശ്രുതിയും ലയവും അതിൻ്റെ ചരണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ പാട്ടിൻ്റെ ലിറിക്സും പഠിക്കുകയാണെങ്കിൽ നമ്മക്ക് ആ ആ പാട്ടും നമുക്ക് അത്രയും മനോഹരമായി പാടാൻ പറ്റും